ഞാന് കുട്ടിക്കാലം മുതൽ മത്സ്യബന്ധനമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറുപ്പകാലം മുതല് ഇങ്ങനെ മത്സ്യത്തിനോടും അങ്ങനെയുള്ള ഐറ്റത്തോടൊക്കെ ഒരു താല്പര്യമൊക്കെയുണ്ട് അതനുസരിച്ച് നമ്മള് പാടമുണ്ട് നമുക്ക് കൃഷിയൊക്കെയുണ്ട് അപ്പോള് കൃഷിയിലേക്ക് പോകുമ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്രദേേഴ്സിൻ്റെയുമൊക്കെ കൂട്ടത്തിൽ നമ്മൾ പണിയാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ നമ്മളവിടെ ചെല്ലുന്നു അവര് പണിയുന്നു നമ്മളവിടെ പാടത്തിരിക്കുന്നു അപ്പം മീൻപിടുത്തം ഒരു രസമുള്ള പരിപാടിയാണല്ലോ മത്സ്യബന്ധനം അപ്പോള് ആദ്യം ഫീൽഡിലേക്ക് നമ്മളിറങ്ങി തോട്ടിലെ ചെറുതായിട്ട് എന്താണ് ഈ തുണി വിരിച്ച് തുണി കൊണ്ട് ചെറിയ മീനുകളെ പിടിക്കുക കണ്ടത്തിൽ ചെളിക്കകത്ത് നടന്ന് അതിനകത്തു നിന്ന് മീനുകളെ പെറുക്കിയെടുക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിത്തുടങ്ങി ചൂണ്ടയിടുക അതുകഴിഞ്ഞ് ചെറിയ വലകളൊക്കെ വീശാനുള്ള ഇതൊക്കെ പഠിച്ച് കുളത്തിലും തോട്ടിലുമൊക്കെ വലയൊക്കെ വീശുക അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള ട്രെയിനിങ്ങും അതൊക്കെ പഠിച്ചു കുഴപ്പമില്ലാതെ പോകുന്നു അതൊക്കെ ഒരു കാലം കുട്ടിക്കാലം മുതല് ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യം നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ളതൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് മുതിർന്നവരില് നിന്നാണ് കൂടുതലും പഠിച്ചത് ചേട്ടന്മാരുമൊക്കെ സഹായിച്ച് അവരൊക്കെ പറഞ്ഞുതന്നും അവരുടെ കൂട്ടത്തില്ക്കൂടി അവരുടെ കൂട്ടത്തില് നടന്നുമൊക്കെയായിട്ടാണ് നമ്മൾ ഇത് പഠിച്ചുതുടങ്ങിയത് അതിപ്പോള് നമ്മള് സ്വയം പര്യാപ്തതയിലായി മറ്റ് സ്കൂളിൽ പോകുന്ന സമയത്തും വെക്കേഷൻ സമയത്തും ഒരു മത്സ്യബന്ധനം ഒരു ഒരു ഒരു ഹോബി പോലെ കൊണ്ടുനടക്കുന്നു അതിനോട് ഇപ്പോഴും താല്പര്യമുണ്ട് എത്രയാണെന്നാലും മനുഷ്യൻ എത്രയാണെങ്കിലും അത് പഠിക്കുമല്ലോ ചെയ്യുമല്ലോ ഇതിനോട് താല്പര്യമില്ലാത്തവരെ കളികൾ പോലെ സ്പോർട്സ് പോലെയൊക്കെയുള്ളൊരു ഐറ്റം ആണല്ലോ മത്സ്യബന്ധനം മീൻപിടുത്തം എന്നൊക്കെ പറയുന്ന മീൻ വളർത്തുകയെന്നൊക്കെ പറയുന്നത് മീൻ സ്വന്തമായിട്ട് വളർത്തുന്നു അങ്ങനെയൊക്കെയായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് നടന്നുപോകുന്നു മുതിര്ന്നവരില് നിന്നാണ് നമുക്ക് കൂടുതൽ ട്രെയിനിങ്ങ് ഒക്കെ കിട്ടുന്നത് ഓരോ രീതി ഓരോ ടെക്നിക്കുകളൊക്കെ പറഞ്ഞുതരുന്നതും ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്തോട്ട് പോയാല് അവിടെയൊക്കെ മത്സ്യങ്ങളുണ്ടാകും തോട്ടിലൊക്കെയാണെങ്കില് ഇന്ന സ്ഥലത്തുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടയിടാൻ പോകുന്നതും രാത്രി പോകുന്നതും പല രീതിയിൽ പല മാർഗ്ഗത്തിൽ മത്സ്യബന്ധനം നടത്തുന്നു